പാചകത്തിന് മുൻപ് നമ്മളിപ്പോൾ എന്താണോ പാചകം ചെയ്യുന്നത് അതിനു വേണ്ടി ആവശ്യപ്പെട്ട ആവശ്യമുള്ള എല്ലാ ചേരുവകളും എടുത്ത് വെക്കാറുണ്ട് അതായത് ഇപ്പം നമ്മളിപ്പോൾ ഒരു ചിക്കൻ ബിരിയാണി വെക്കാണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്ത് വെക്കും പിന്നെ ഈ സവാള കട്ട് ചെയ്ത് വെക്കും ഇനി തക്കാളി കട്ട് ചെയ്ത് വെക്കും പിന്നെ ആ പച്ചമുളക് അതിനാവശ്യത്തിന് വേണ്ടി എടുത്ത് പിന്നെ അതിന് വേണ്ടിയുള്ള പൊടികൾ അതായത് മസാലപ്പൊടി ഗരംമസാല മല്ലിപ്പൊടി മുളക്പൊടി മഞ്ഞൾപ്പൊടി അങ്ങനത്തെ ബിരിയാണി മസാല അങ്ങനത്തെയൊക്കെ എടുത്ത് വെക്കും പിന്നെ അരിയെടുത്ത് കുതിർത്ത് വെള്ളത്തിൽ വെച്ച് അത് ആറ്റി വെക്കും പിന്നെ എന്നാ ചെയ്യാർ എന്ന് വെച്ചാൽ അതിന് വേണ്ട ഇലകൾ അതായത് മല്ലിച്ചപ്പ് കറിവേപ്പില അതൊക്കെ എടുത്തു വെക്കും പിന്നെ ചിക്കൻ ഒക്കെ കഴുകി നല്ലോണം മസാല പുരട്ടി അവിടെ വെക്കും മെ പിന്നെ ചിക്കൻ ബിരിയാണി വെക്കുമ്പോൾ മെയിനായിട്ട് പിന്നെ എന്തൊക്കെയാണ് തൈര് വേണമെങ്കിൽ അതൊക്കെ സെറ്റാക്കിയിട്ട് അതിൽ കച്ചമ്പറൊക്കെ മുറിച്ച് അങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് ആക്കി വെക്കാറുണ്ട് നമുക്ക് എ പിന്നെ എല്ലാം നമ്മുടെ ഗ്യാസ് ഓണ് ആക്കുമ്പോൾ എല്ലാം നമ്മുടെ മുന്നിൽ തന്നെ പെട്ടന്ന് പെട്ടെന്ന് അതിലേക്ക് ഓരോ ചേരുവകളും ആവശ്യാനുസരണത്തിന് ഇടാൻ വേണ്ടീട്ട് ഓരോന്നും സെറ്റ് ആക്കി വെക്കാറുണ്ട്